പാട്ട് കേൾക്കാൻ താല്പര്യമാണ് പാട്ട് പാടാൻ താല്പര്യമാണ് അങ്ങനെ പല കാര്യങ്ങൾ എനിക്ക് താല്പര്യമാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമ പാട്ടുകളാണ് ഞാൻ കൂടുതലായിട്ട് കേൾക്കാറുള്ളത് പാടാറുള്ളതും തമിഴായാലും തമിഴും മലയാളവുമാണ് ഞാൻ കൂടുതൽ കേൾക്കാറുള്ളത് അത് വളരെ എനിക്ക് വളരെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കുക ആണെങ്കിൽ പോലും അത് കേൾക്കുന്നത് ഒക്കെ വളരെ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അങ്ങനത്തെ ഗാനങ്ങളാണ് കേൾക്കാറുള്ളത് ഇഷ്ട്ട ഗായകൻ എന്ന് പറയുന്നത് എ ആർ റഹ്മാനുണ്ട് കെ എസ് ചിത്ര ആ അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാട്ട് കേൾക്കാനും പാട്ട് പാട്ടിനോടുള്ള ഇഷ്ടം വളരെ കൂടുതലാണ് പാട്ടുകളെപ്പോഴും ഒരു മനുഷ്യനെ പഴയ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അതേപോലെ തന്നെ പല പലപ്പോഴും നമ്മൾ ഏതാണോ നമ്മൾ വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഒരു സമാധാനമായിട്ട് നമുക്ക് തോന്നും നമ്മൾ ഒറ്റക്കിരിക്കുക ആണെങ്കിൽ പോലും പാട്ട് നമുക്ക് കൂട്ടായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ പാട്ട് എപ്പോഴും നല്ല ഒരു ഒരു കേൾക്കാനും ഇമ്പമുള്ളതും ഒരു എന്താണ് പറയുക ആസ്വാദ്യകരമാണ് അതുകൊണ്ട് തന്നെ പാട്ട് എനിക്ക് വളരെ ഇഷ്ട്ടമാണ് ഞങ്ങളുടെ ദേശത്ത് നാടൻ പാട്ടുകൾ ഇപ്പം നാടൻ പാട്ടുകളെന്ന് പറയുമ്പം ഞങ്ങളെ മനസിലേക്ക് ഇപ്പം ഓടിയെത്തുന്നത് ആ മണിയേട്ടനാണ് കലാഭവൻ മണി നാടൻ പാട്ടുകൾ കൂടുതലായിട്ടും മലയാളികൾക്ക് ഇടയിൽ കൂടുതലായിട്ട് കലാഭവൻ മണി വന്നപ്പോഴാണ് നാടൻ പാട്ടുകളൊക്കെ വളരെ ശ്രദ്ധ നേടിയത് അത് ഏതൊരു സാഹചര്യത്തിലും നാടൻ പാട്ട് വന്നാൽ ഏത് ആര് ആർക്കായാലും താളം പിടിക്കാൻ തോന്നും അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് എത്ര വലിയ ഗായകരുടെ പാട്ട് കേട്ടാലും ഒരു നാടൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പഴയ ആൾക്കാർക്കായാൽ പോലും പുതിയ ആൾക്കാർക്കായാൽ പോലും ഒരേ രീതിയിൽ കൊണ്ടു പോവാൻ പറ്റുന്ന നാടൻ പാട്ടുകൾക്കാണ് നാടൻ പാട്ടുകൾക്ക് ഇന്നും അന്നും ഒരേ രീതിയിലുള്ളൊരു സ്വീകരണമാണ് പ്രേക്ഷകർ കൊടുക്കാറുള്ളത് പാട്ടുകൾ എപ്പോഴും നല്ലതാണ് പാട്ട് കേൾക്കാനും പാട്ട് പാടാനും അതൊക്കെ പറയുന്നത് പാട്ടിനോടുള്ള ഇഷ്ടം തോന്നുന്നവർക്ക് അത് വളരെ പ്രീതികരമായിരിക്കും